ആ ഞാൻ എനിക്ക് ഡാൻസിനെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഡാൻസ് പഠിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ട് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ ആ എൻ്റെ പേര് ജിനി ജിനി ഡാൻസ് പഠിച്ചില്ല ഡാൻസ് കളിക്കാൻ എനിക്ക് ഇഷ്ടമാണെന്നേ ഉള്ളു ആ ഡാ ആ ക്ലാസ്സിക്കല് ഇഷ്ടമാണ്

ആ എനിക്ക് ക്ലാസ്സിക്കൽ ഡാൻസ് ഇഷ്ടമാണ് അത് കളിക്കാൻ താൽപര്യം ഉണ്ട് പിന്നെ പിന്നെ അത് അതാവുമ്പോ അതിൻ്റെ ഡ്രസ്സൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഡ്രസ്സ് അതിന് എല്ലാത്തിനും കൂടെ എത്ര രൂപ ആവും പഠിക്കാൻ ഡ്രസ്സ് ഒരു ഒരു അത് എത്രയാവും ഓ അത്ര ആവും അല്ലേ അല്ല ഏത് ഇപ്പം ഏത് ക്ലാസിൽ ഏത് ക്ലാസ്സിന് വന്നാലും ഇത്രയും തന്നെയാണോ റേറ്റ് ആണല്ലേ ആ ആ എനിക്ക് ഡേ ക്ലാസ്സ് താൽപര്യം ഇല്ല അല്ല എനിക്ക് ആ ആ ചാർജ് വ്യത്യാസം ഉണ്ടല്ലേ സിംഗിൾ ആയിട്ട് നടത്തുന്നതിനാണ് ഈ ചാർജ് കൂടുതൽ അല്ലേ

ആ മതി മതി അപ്പം അതിന് കുറവുണ്ടല്ലോ അത് മതി കുഴപ്പം ഇല്ല അത് അങ്ങോട്ട് പഠിച്ചെടുത്തോളാം ഞാൻ ആയതുകൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പം പറ്റുമായിരിക്കും ആ പിന്നെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ